ട്രക്കിങ്ങ് സ്ഥലങ്ങളിൽ വിനോദസഞ്ചാരത്തിന് മുൻമ്പത്തേതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകി വരുന്നു വിനോദസഞ്ചാരം കൂടുന്ന കാരണത്താൽ അവിടെ വൃത്തിഹീനതയും ഇല്ലാതെയായി വരുന്നു കാരണം ട്രക്കിങ്ങിന് വരുന്ന വിനോദസഞ്ചാരികൾ പല വസ്തുക്കളും കൊണ്ടുവന്നിട്ട് ഭക്ഷണ സാധനകളായിട്ടും അവരുടെ ഡ്രസ്സുകളായിട്ടും പലതും കൊണ്ട് വന്നിട്ട് അവിടെ മാലിന്യമായി തള്ളാറുണ്ട് മനുഷ്യൻ്റെ കൈവശം കയ്യിലൂടെ മാത്രമേ മാലിന്യങ്ങൾ പുറത്തേക്ക് വരുന്നുള്ളൂ അപ്പോളിന്ന് നമ്മുടെ ട്രക്കിങ്ങ് മേഖലകളിൽ ആദ്യത്തേക്കാൾ സുന്ദരമാണെങ്കിൽ കൂടി പക്ഷേ മാലിന്യം കൂടുതലായി അല്ലെങ്കിൽ വൃത്തിഹീനത കൂടുതലായി കാണപ്പെടുന്നു ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി അതാത് പഞ്ചായത്തുകൾ മുഖേനയും ഓരോ വാർഡ് കമ്മിറ്റി മുഖേനയും ഈ പരിസരം ഓരോ ദിവസവും രാവിലെയും അല്ലെങ്കിൽ വൈകുന്നേരവും വൃത്തിയാക്കുന്നുണ്ട് കൂടുതലും വൈകുന്നേരം ആയ സ്ഥലങ്ങളിലാണ് വൈകുന്നേര സമയത്താണ് ഇത് കൂടുതലും വൃത്തിയാക്കുന്നത് അതിനാൽ രാവിലേക്ക് വളരെയധികം സുന്ദരമായി കാണപ്പെടുന്നു നമ്മുടെ അവിടെ വരുന്ന ട്രക്കിങ്ങിന് വരുന്ന വിനോദസഞ്ചാരികൾ തന്നെയാണ് അവരോടൊപ്പം വരുന്ന ആളുകളും കൂടിയാണ് മാലിന്യങ്ങൾ കൊണ്ടുവരുന്നത് പക്ഷെ അവർ വരുമ്പോൾ മാലിന്യം കൂടെ വരുന്നു അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചെങ്കിൽ അവർ ഭക്ഷണം കാര്യങ്ങൾ ഒക്കെ കൊണ്ട് വരുന്നു അതിൻ്റെ വേസ്റ്റ് അവർ അവിടെ ഉപേക്ഷിച്ച് പോകുന്നു ചുരുക്കം ആളുകൾ മാത്രമാണ് അവനവൻ്റെ വേസ്റ്റ് അവനവൻ തന്നെ കൊണ്ടുപോകുന്നത് ബാക്കിയെല്ലാം അവിടെ തന്നെയിട്ട് പോകുന്നുണ്ട് എന്നാലും പഞ്ചായത്തും വാർഡ് കമ്മിറ്റിയൊക്കെ അതാത് ദിവസം വൈകുന്നേരംതന്നെ വന്ന് വൃത്തിയാക്കൽ കാരണത്താൽ ഒരുവിധമൊക്കെ വൃത്തിയായി കാണപ്പെടുന്നുണ്ട്